സാധാരണയായി കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഏറ്റവും ചെറിയ മത്സ്യം എന്ന് പറയുന്നത് ഐല മത്തി തുടങ്ങിയവയാണ് കേരളക്കരയിൽ ഏറ്റവും കൂടുതലായി മനുഷ്യർ ഉപയോഗിക്കുന്നതും ഐല അല്ലെങ്കിൽ മത്തി എന്ന് പറയുന്ന മീനുകളെയാണ് ഇവയിൽ ശരീരത്തിന് ആവശ്യമായ പല കാൽസ്യം കാൽസ്യം അല്ലെങ്കിൽ പ്രോട്ടീൻ തുടങ്ങിയവ അടങ്ങിയിരിക്കുന്ന മത്സ്യങ്ങളാണ് ഈ വരുന്നത് ഇതിൽ ഇഷ്ടപ്പെടാൻ കാരണമെന്തെന്നു വച്ചിട്ടുണ്ടെങ്കിൽ വീട് ഇതായിട്ടുള്ള തനതായ ഓരോ രുചികളിൽ ഓരോരോ മത്സ്യത്തിനും വരുന്നതാണ് ഇത് കൂടുതലായിട്ടും കഴിക്കപ്പെടുന്നതിനും വേറെ ഒരു കാരണം എന്നു പറഞ്ഞാൽ വിലക്കുറവിൽ നല്ല മത്സ്യം ലഭിക്കുന്നത് കൊണ്ട് കൂടിയാണ് ഇത് മൂലം ജനങ്ങൾക്ക് അവരുടെ അന്നന്നത്തെ ചിലവുകളിൽ ഒതുങ്ങികൂടാൻ കഴിയുന്ന ചില മത്സ്യങ്ങളാണ് ഇവ അവരുടെ ദൈനംദിന ഭക്ഷണ മേഖലയിൽ ഏറ്റവും കൂടുതലായി ഉപയോഗിക്കപ്പെടുന്ന മത്സ്യം എന്നു പറയുന്നതും ഇവ രണ്ടുമാണ് കടലോര പ്രദേശങ്ങളിൽ ഉള്ളവർക്ക് മത്സ്യങ്ങൾ എല്ലാതരം ഉപയോഗിക്കാമെങ്കിലും മലയോര മേഖലകളിലുള്ളവർക്ക് മത്സ്യം ലഭിക്കണമെങ്കിൽ കുറച്ചു ബുദ്ധിമുട്ടാണ് അതിൻ്റേതായ വരവിന് അനുസരിച്ചു മാത്രമേ അവ ലഭിക്കപ്പെടുന്നുള്ളൂ ഇതാണ് ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് മലയോര മേഖലകളിലേക്ക് മത്സ്യങ്ങൾ വാഹനങ്ങളിൽ എത്തിക്കപ്പെടുന്നതിന് അനുസരിച്ചു അതിൻ്റേതായ വിലയിലും ഗുണത്തിലും മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടേ ഇരിക്കുന്നതാണ് എങ്കിൽ കൂടിയും ജനങ്ങൾ ഏറ്റവും കൂടുതലായി മത്സ്യത്തെ ഇഷ്ടപ്പെടുകയും അവയെ രുചിച്ചു കഴിക്കുകയും ചെയ്യുന്നു